ഞാനിന്നലെ ഒരു വിഭവം ഉണ്ടാക്കിയിരുന്നു ഒരു ഫ്രൂട്ട് കസ്റ്റഡ് വെച്ചിട്ട് ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിരുന്നു കസ്റ്റാഡ് പൗഡറ് വെച്ചിട്ട് അത് ഉണ്ടാക്കിയത് എന്താണ് പാൽ പാലിൽ പാൽ രണ്ട് കൂട് പാൽ എടുത്തു പാലിൽ പിന്നെ കുറച്ച് പാൽ അതിൽനിന്ന് മാറ്റിയിട്ട് ഫ്രൂട്ട് കസ്റ്റഡ് ഇട്ടിട്ട് പൊടി കലക്കിയിട്ട് പാൽ ചൂടായപ്പം അതിലൊഴിച്ച് ഉണ്ടാക്കി എന്നിട്ട് അത് നല്ലവണ്ണം ചൂടാറി കുറുക്കി എടുത്തതിന് ശേഷം അത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് മൂന്ന് മണിക്കൂറ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചു അതിന് ശേഷം അതിൽ ഫ്രൂട്ട്സുകൾ എന്താണ് മുന്തിരി പൈനാപ്പിൾ ആപ്പിൾ രണ്ടുതരം മുന്തിരി ചേർത്തിരുന്നു എന്താ കുരു ഇല്ലാത്ത മുന്തിരിയാണ് ചേർത്തത് പിന്നെ പൈനാപ്പിള് ചേർത്തിരുന്നു ഒക്കെ എല്ലാം ചെറിയ ചെറിയ പീസ് ആക്കി കട്ട് ചെയ്തിട്ടുവേണം അതിൽ ചേർക്കാൻ എന്നിട്ട് ലൂസ് ആക്കി കുറച്ച് ലൂസ് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് പിന്നെ കുറച്ച് വാനില എസ്സെൻസ്സ് ചേർത്തു പഞ്ചസാര പൊടിച്ച് ചേർത്തിട്ടാണ് അത് കുറുക്കിയ സമയത്ത് പഞ്ചസാര കുറുക്കി പൊടിച്ചിട്ടാണ് അതിൽ ചേർത്തത് എന്നിട്ടാണ് മിക്സ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ചത് എന്നിട്ട് സെർവ് ചെയ്യാൻ നേരത്ത് ഈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് നല്ലതുപോലെ പാകമാക്കി ഞാൻ യൂറ്റൂബിൽ അതായത് ഇത് ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ട് ഒരിക്കൽ കണ്ടപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് തോന്നി അപ്പം ഇന്നലെ ഒരു ഒരു വീട്ടിലൊരു ചെറിയൊരു ഫങ്ക്ഷൻ ഉണ്ടായിരുന്നു ഒരു വിരുന്ന് വിളിച്ചിരുന്നു കുറച്ച് ആൾക്കാരെ അപ്പോൾ അവർക്ക് ഒരു ഡെസേട്ട് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് കരുതിയിട്ട് ഇന്നലെ ട്രൈ ചെയ്ത് നോക്കി അതിൽ എന്താ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടതിന് ശേഷം കുറച്ച് വാനില എസ്സൻസ് ഒക്കെ ചേർത്ത് നല്ലതുപോലെ ഞാൻ വാനില ഫ്രൂട്ട് വാനിലേൻ്റെ ഫ്ലേവർ ഉള്ള ഫ്രൂട്ട് കസ്റ്റഡ് വെച്ചിട്ടാണ് ചെയ്തത് അതെല്ലാവർക്കും വളരെ ഇഷ്ടമായി എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് കഴിച്ചിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു അങ്ങനെ അത് നല്ല രീതിയിൽ എനിക്ക് വളരെയധികം സന്തോഷമായി കാരണം ഞാൻ ഉണ്ടാക്കിയ ഒരു ഭഷണം ഒരാൾ അത് നന്നായിട്ടുണ്ടെന്ന് ഒരാളല്ല ഒന്നിൽ കൂടുതൽ ആളുകൾ പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി